ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാനെനിക്ക് ആഗ്രഹമുണ്ട് അതിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളു ഇനിയും പോവാനിരിക്കുകയാണ് ഭാവിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുപാടുണ്ട് അതിൽ ചിലത് മാത്രം ഞാൻ പറയാം ഒന്ന് നമ്മുടെ കൊച്ച് കേരളം അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളം കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമുണ്ട് ധർമ്മശാലക്കടുത്തുള്ള പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ മടപ്പുര എന്ന് പറയും അമ്പലമാണ് മടപ്പുര അവിടത്തെ അവിടത്തൊരനുഭൂതി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത് സന്തോഷമാണ് അവിടെ പോയി ഇരുന്നാൽ തന്നെ മുത്തപ്പനെ കണ്ട് പ്രാർഥിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്ക നീങ്ങുന്ന പോലെയാണ് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം തന്നെ നല്ല ആൾക്കാരാണ് നല്ല ഭക്ഷണമാണ് മുത്തപ്പൻ്റെ അവിടെ രണ്ട് തരം പ്രസാധങ്ങളാണ് കിട്ടുക ഒന്ന് പയർ പിന്നൊന്ന് ചായ ചായയും പയറുമാണ് അവിടത്തെ ഊട്ടുപുരയിൽ കിട്ടുന്ന ഒരു പ്രസാദം രണ്ടാമത് ഉച്ചക്ക് കിട്ടുന്ന ചോറ് പരിപ്പ്കറി പിന്നെ ഇച്ചിരി മോര് ഇതും കൂടി കഴിക്കുമ്പോൾ നമ്മുടെ വയറും നിറയും മുത്തപ്പനെ കണ്ട് മനസ്സും നിറയും അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതിൽ ഇതിലെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ അവിടെ താമസിച്ചിട്ട് ഉള്ളതാണ് പണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ അപ്പോൾ അവിടെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ചെറുപ്രായങ്ങളിൽ കളിപ്പാട്ടങ്ങളാണല്ലോ നമ്മളെ ആകർഷിക്കുക മൊത്തം കളിപ്പാട്ടങ്ങളായിരിക്കും അച്ഛനോടും അമ്മയോടൊക്കെ വാങ്ങിത്താ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ള സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇപ്പോഴും കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ മനസ്സ് ഒന്ന് കൊതിക്കും അത് വേറെ കാര്യം പറശ്ശിനിയുടെ വേറെ പ്രത്യേകതാന്ന് പറയുന്നത് അവിടത്തെ പുഴ പുഴയുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുവാണ് ആ ഒരു മടപ്പുര ഇപ്പം നമ്മൾ പറശ്ശിനിയുടെ മുൻവശം കാണണമെങ്കിൽ നമ്മൾ ഹൗസ് ബോട്ട് കയറി നമ്മൾക്ക് അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും പറശ്ശനീം കാണാൻ പറ്റും പുഴയും കാണാൻ പറ്റും ഒരുപാട് മീനുകളുണ്ട് കരിമീനുണ്ട് അങ്ങനെ കുറെ മീനുകളൊക്കെ നമുക്ക് കാണാൻ കിട്ടും പിന്നെ അവിടത്തെ പ്രത്യേകതാന്ന് പറയണത് മുത്തപ്പൻ തെയ്യമാണ് രണ്ട് തെയ്യങ്ങളുണ്ട് മുത്തപ്പനുണ്ട് വെള്ളാട്ടോം ഉണ്ട് ഇപ്പം ഈ രണ്ട് ദൈവങ്ങളാണ് അവിടെ അരങ്ങ് വാഴുന്നത് ചില സമയങ്ങളിൽ മാത്രമേ തെയ്യം ഉണ്ടാവുള്ളു ഡിസംബറ് മാസത്തിലാണ് അവിടത്തെ ഉത്സവങ്ങൾ നടക്കുക അപ്പോൾ ആ ഒരു മാസം നമ്മൾ ചെല്ലുവാണേൽ എല്ലാ സമയം നമുക്ക് തെയ്യം കാണാൻ പറ്റും പിന്നെ അവിടത്തെ ആഘോഷങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതാണ് എനിക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ട കാര്യം എത്രപോയാലും മതി വരാത്ത സ്ഥലവാണ് പറശ്ശിനി മടപ്പുര വേറെ ഇഷ്ടമുള്ള കാര്യം സ്ഥലന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ല അവിടുത്തെ മിഠായിത്തെരുവ് കോഴിക്കോട് എന്തിനാണ് കോഴിക്കോടിൻ്റെ പ്രത്യേക എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കടലുണ്ട് അതുപോലെ മിഠായികൾ കോഴിക്കോടൻ ഹൽവ അതാണ് ഏറ്റവും പ്രത്യേകത ഏറിയത് ഹലുവ കഴിച്ചിട്ടുണ്ട് വിവിധതരം ഹലുവകളുണ്ടവിടെ അതിഷ്ടമാണ് അതുപോലെ മിഠായിത്തെരുവ് മിഠായിത്തെരുവിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ടാവും സാധനങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാനും പറ്റും കാണുന്നത് നല്ല രസവുമായിരിക്കും അങ്ങനെയാണ് കോഴിക്കോട് പിന്ന ബീച്ച് അതുപോലെ മനസ്സിന് ശാന്തത നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ പോയി നമ്മൾ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ആ ഒരു ശാന്തത നമുക്ക് ലഭിക്കും സന്തോഷോം ലഭിക്കും പിന്നെ ഒരുപാട് കൂട്ടുകാരും എനിക്ക് കോഴിക്കോട് അവിടുണ്ട് അപ്പോൾ ഞാൻ കോഴിക്കോട് പോകുന്ന സമയങ്ങളിലൊക്കെ കൂട്ടുകാരേം കൂടി ചേർത്ത് അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കും പോവുക അങ്ങനെ പോയി അവരുടെ കൂടെ സമയം ചിലവഴിച്ച് ആ ഒരു ദിവസം തീർക്കുക എന്നാണ് എൻ്റെ മിക്ക സമയത്തെയും ആഗ്രഹങ്ങളുണ്ടാവുക പിന്നെ ഇഷ്ടമുള്ള സ്ഥലംന്ന് പറയുമ്പോൾ കർണാടകയിൽ ദക്ഷിണ കർണാടകയിൽ വരുന്നത് ദക്ഷിണ കന്നടയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ധർമ്മസ്ഥലം പിന്നൊന്ന് കുക്കി കുക്കെ ശ്രീ ശുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അപ്പം ഈ രണ്ട് സ്ഥലങ്ങളിൽ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ പോകുന്നതാണ് അപ്പോൾ അവിടെ പോകുന്നത് ഇഷ്ടവാണ് ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ സ്വാമിയുണ്ട് കുക്കെയിൽ സുബ്രമണ്യ സ്വാമീണ്ട് ഇവരെ രണ്ട് പേരെയും കണ്ടു തൊഴുത് അവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ച് അവിടെ കന്നഡ തുളു സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരോടും പോയി സംസാരിച്ച് അവരുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ അറിഞ്ഞ് കുക്കെയിലെ രഥോത്സവം രഥോത്സവം എന്തൊക്കെയാണ് കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒക്കെയാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങടെ വീട്ടിലെന്ന് പറയുമ്പോൾ തെയ്യാരാധനയുള്ള ആൾക്കാരാണ് ഞങ്ങൾ പഞ്ചുരുളി ഇതുപോലെ ധർമ്മദൈവാ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു സംസ്കാരമായിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളാണ് ധർമ്മ ധർമ്മസ്ഥല അവിടെ പോയാൽ ഞങ്ങളുടെ തെയ്യം കഴിപ്പിക്കണമെങ്കിൽ തന്നെ അവിടെ പോയി ഹെഗ്ദറെ കണ്ട് ഞങ്ങൾ തെയ്യം കഴിപ്പിക്കുകയാണ് ഇങ്ങനൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തുടങ്ങാൻ തന്നെ അപ്പോൾ ധർമ്മസ്ഥല അമ്പലവും ഞങ്ങളുടെ തെയ്യാരാധനയും ഒക്കെ ബന്ധമുള്ള കാര്യങ്ങളാണ് ഒന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്ത കാര്യങ്ങളായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇടക്ക് അവിടെ പോയി സന്ദർർശിക്കാറുണ്ട് യാത്ര ചെയ്ത് കണ്ട് വരാറുണ്ട് വേറെ സ്ഥലം പോവാനാഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ആഗ്ര ഇന്ത്യയിൽ സ്ഥിതിചെയ്യുന്ന താജ്മഹൽ ഷാജഹാൻ തൻ്റെ പ്രണയത്തിൻ്റെ പ്രതീകമായി മുംതാസിന് വേണ്ടി കഴിപ്പിച്ചതാണ് താജ്മഹൽ അതും ഏഴ് വിസ്മയങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ലോകവിസ്മയങ്ങളിൽ അപ്പം അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നെങ്കിലും സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വിദ്യാർഥിയാണ് കുറച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും പൈസ സമ്പാദിക്കണം അതിൻ്റെ കൂടെ വീട്ട് ചിലവ് അങ്ങനെയൊക്കെ നോക്കുന്നത്തിൻ്റെ കൂടെ തന്നെ സ്വന്തം സന്തോഷം എന്ന രീതിക്ക് യാത്രയും ചെയ്യണം കുടുംബങ്ങളെ കൂട്ടി യാത്ര ചെയ്യണം ഒറ്റക്ക് യാത്ര ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളാഗ്രഹങ്ങൾ ഇതൊക്കെ നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെയാണെൻ്റെ കണക്ക് കൂട്ടലുകളും പിന്നെ ലോകത്ത് അങ്ങനെ യാത്ര ചെയ്യാനാഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ പണ്ട് ചെറുപ്പ കാലത്ത് ചോട്ടാഭീം കാർട്ടൂണ് കാണുമ്പോൾ കണ്ടൊരു കാര്യവാണ് ചോർട്ടൻസ് ഓഫ് പെട്ര ഇതും ലോക വിസ്മയങ്ങളിൽപ്പെടുന്നതാണ് ഈ ഒരു സ്ഥലം കാർട്ടൂണിൽ കണ്ടിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടത് ചോട്ടാഭീം അവടെപ്പോയി അവിടെ കലാവിരുത് നടത്തുന്നതൊക്കെയാണ് അപ്പം ആ സ്ഥലങ്ങളിൽ പോണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതും നടത്തും പിന്നെ പാരിസ് പാരിസിലേക്ക് പോണം ഫ്രാൻസ് അവിടുത്തെ ഇഫിൽ ടവറൊന്ന് കാണണം വേറെ ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഒരുപാട് യാത്രകൾ ചെയ്യണം പ്രധാനമായും അത് തന്നെയാണ് ഇപ്പോൾ പ്രാദേശികപരമായിട്ടുള്ള കാസർകോട് തൊട്ട് കാസർകോടിൽ എവിടെയൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ തൊട്ട് എനിക്ക് ലോകം മൊത്തം ലോകത്ത് എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ചെല്ലണം എന്നാണ് ആഗ്രഹം ഞാൻ പഠിച്ചത് തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയാണ് അപ്പോൾ ഈ ഒരു മേഖല തിരെഞ്ഞെടുക്കുന്നത് തന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ട് അവരുടെ സംസ്കാരവും അതുപോലെ അവരടെ ജീവിതരീതികളും അവരുടെ അവരുടെ ഭാഷകൾ അവരുടെ ഭക്ഷണം ഇതെന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് കൊണ്ട് ജീവിക്കാൻ വേണ്ടീട്ടാണ് ഇതൊക്കെ നമുക്ക് പുതിയ അനുഭവങ്ങളായിരിക്കും പുതിയ പുതിയ അനുഭവങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വേറെ ഞാൻ ഏവിയേഷൻ മേഖല കൂടി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും എനിക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു പുതിയ ആൾക്കാരെ കണ്ട് കണ്ട് മുട്ടാനും അവരുമായിട്ട് സമയം ചിലവഴിക്കാനൊക്കെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കുതകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസമേഖലയും തിരഞ്ഞെടുത്തത് അപ്പം എല്ലാം എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്